ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ അതായത് വിവിധ തലങ്ങൾ തമ്മിലുള്ള സഹകരണക്കുറവും ഏകോപനക്കുറവുമൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചർ ടീച്ചർമാർക്ക് ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഇപ്പോൾ കുട്ടികളെ ഇപ്പോൾ ഒരു ക്ലാസില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തറുപത് കുട്ടികളുണ്ടാവും അപ്പോഴെന്ന് വെച്ചാൽ പല പല കുട്ടിക്കും പല കഴിവുകളും പല രീതികളും കാര്യങ്ങളും ഒക്കെയായിരിക്കും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ പിന്നെ കൊണ്ടുനടക്കാൻ ചിലപ്പോൾ ടീച്ചർമാർക്ക് പറ്റിയെന്ന് വരില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിച്ചേരാൻ പറ്റിയെന്നു വരില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവര് എങ്ങനെ പഠിക്കുന്നത് എങ്ങനെ എഴുതുന്നത് നമുക്ക് എല്ലാവരേയും മാക്സിമം നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും വീട്ടില് മാതാപിതാക്കള് അതായത് കുട്ടികളുടെ വീട്ടില് വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പ്ലേ ടൈം കാര്യങ്ങള് ഒക്കെ കഴിഞ്ഞതിനു ശേഷം അതായത് അവര് പഠിപ്പിച്ചതിനു ശേഷം അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുക അപ്പോൾ അവർക്കെന്തിനൊക്കെയാണ് താല്പര്യം എന്ന് കൂടുതലും ടീച്ചർമാർക്കും മാതാപിതാക്കൾക്കും അറിയാൻ പറ്റുകയാണെങ്കിൽ അത് തമ്മിലുള്ള ഇത് അതൊക്കെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഏതാണ് താല്പര്യം എന്നു വെച്ചാൽ അതിനനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക സാങ്കേതികവിദ്യ പിന്നെ ഗണിതം ചില കുട്ടികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണിതം അതിലൊക്കെ ഭയങ്കര കഴിവ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ അറിയുകയാണെങ്കിൽ അവരെ ആ ഒരു ഫീൽഡിലേക്ക് വിടുക